ഇല്ല അങ്ങനെ ദൈവവിഗ്രഹങ്ങൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മത പരിപാടികൾക്കായിട്ട് പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കുരിശുരൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഈ കുരിശിൻ്റെ വഴിക്കൊക്കെ പോവുമ്പം കുരിശിൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ ഇതാക്കാമെന്ന് പറയും അങ്ങനെ ഉണ്ടാക്കിയതല്ലാതെ വിഗ്രഹങ്ങൾ അങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല